ചെടികൾ വളർത്താനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചെമ്മണ്ണ് ആണ് മണ്ണ് പല തരത്തിലുണ്ട് ചെമ്മണ്ണ് ഉണ്ട് കരി മണ്ണ് ഉണ്ട് കളി മണ്ണ് ഉണ്ട് പക്ഷേ ഞങ്ങൾ സാധാരണ ചെമ്മണ്ണാണ് ഉപയോഗിക്കുന്നത് ഈ മണ്ണ് മാത്രം ഇട്ട് നമ്മൾ ചെടി നടുമ്പോ വെള്ളൊക്കെ ഒഴിക്കുമ്പോൾ മണ്ണിനു കട്ടി വരും അപ്പം പിന്നെ അത് വേര് ശരിക്ക് ഓടില്ല അപ്പം അത് കൊണ്ട് ഞങ്ങൾ സാധാരണ കരി ഈ മണ്ണിൻ്റെ കൂടെ മറ്റേ ചാണകപ്പൊടി ചകിരിച്ചോറ് അങ്ങനെ ഉള്ള സംഭവങ്ങളും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ട് നടും ജൈവ വളമാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ജൈവവളത്തിൽ നിന്നകുമ്പം ഈ ചെടികളൊ ക്കെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അത് കൂടുതൽ നാൾ ഈട് നിൽക്കുകയും ചെയ്യും കാരണം നമ്മൾ രാസ വളമൊക്കെ ഉപയോഗിക്കുക ആണെങ്കിൽ പെട്ടെന്ന് വളർന്ന് വന്ന് ആ സാധനം പിന്നീട് രാസവളത്തിൻ്റെ ഇത് കൊണ്ട് നശിച്ച് ഉണങ്ങി പോവും പക്ഷെ ജൈവവളമാണങ്കിൽ നമ്മൾ കൂടുതൽ നാൾ ആ ചെടികൾ നില നിന്ന് പോവും ഞങ്ങൾ ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഇത് ഇത്ര നാളായിട്ട് ചെയ്ത് വരുന്നത്